കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന കുടുംബങ്ങളിപ്പോഴും നമുക്കിടയിലൊക്കെ ഉണ്ട് എത്രയൊക്കെ നമ്മൾ വളർന്നുവെന്നു പറഞ്ഞാലും നമുക്കിടയിൽ കുറച്ച് പേരെങ്കിലും ഇതിന് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അവരെ നമുക്ക് സഹായിക്കാൻ കഴിയുകയെന്നു വെച്ചാൽ നമുക്കറിയുന്ന കുടുംബങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ടു പോയിട്ട് അവർക്കു വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്നത് ഹെല്പ് ചെയ്യാം പക്ഷേ ഇപ്പോൾ നമുക്ക് ഇപ്പം നമുക്ക് ഇടയിലെന്നു പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ റെലവൻറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് നമുക്ക് എന്തും നമ്മൾ സോഷ്യൽ മീഡിയ വഴിയാണ് നമ്മളറിയുന്നതും അതേ പോലെ തന്നെ നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ അപ്പം അങ്ങനെ ഉണ്ടോയെന്നുണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്തിലായാലും നമുക്കിപ്പം യൂട്യൂബുണ്ട് അല്ലെങ്കിൽ വാട്സപ്പുണ്ട് അപ്പം പിന്നെ ഒരു ഗ്രൂപ്പ് തുടങ്ങാം വാട്സപ്പിലായാലും ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുക നമുക്കാ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയുന്നവരെ അവരുടെ ഡീറ്റെയിൽസ് നമുക്കു തരാൻ വേണ്ടിയിട്ട് പറയാം അങ്ങനെ അത് അവർ ഷെയർ ചെയ്ത് ഷെയർ ചെയ്തു പോയി ഒരുപാട് പേരിലേക്ക് എത്തി അപ്പം അവർ നമുക്ക് അവർക്ക് അവർക്കറിയുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരത് അവരുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം അപ്പം നമുക്ക് നാം നമ്മുടെ ഗ്രൂപ്പിലുള്ള അംഗങ്ങളാരൊക്കെയാണോ നമുക്ക് കൂടുതൽ പേർ നമുക്ക് ആഡ് ചെയ്യണോ അത് ആഡ് ചെയ്യാം അപ്പം അത് അവർ കഴിയുന്നത് ഷെയർ ചെയ്ത് ഒരമൗണ്ട് അപ്പം നമുക്ക് അറിയാം ഇപ്പം ഒരു പ്രാഥമിക വിദ്യാഭ്യാസത്തിനു വേണ്ട ഒരു ചിലവെത്രത്തോളം വരും എന്നുള്ളത് നമുക്ക് നമുക്കൊരൂഹം വെച്ചിട്ട് കാൽകുലേറ്റ് ചെയ്യാവുന്നതാണ് അപ്പം അങ്ങനെ നോക്കിയിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്ത് അത് നമ്മള് അവർക്ക് ആ പണം ഒന്നല്ലെങ്കിൽ പണമായിട്ട് കൊടുക്കുക അതല്ലയെന്നാണെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസത്തിനെന്തൊക്കെ ആവശ്യമാണോ അതു നമ്മൾക്ക് സാധനങ്ങളായിട്ട് മേടിച്ചു കൊടുക്കാം ഇപ്പം അവർക്കു വേണ്ട യൂണിഫോം ബുക്സ് ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നമുക്കത്യാവശ്യം പൈസ ഉള്ളൊരു കാലഘട്ടമാണ് അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് അതേ പോലെ അതിനു വേണ്ട നോട്ട് ബുക്സ് ബാഗ് മറ്റ് സ്കൂളുകളിലേക്കാവശ്യമായ സാധന സാമഗ്രികൾ എന്തൊക്കെയാണോ അതു നമുക്ക് മേടിച്ചു കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ വേറെ ആ അല്ലെങ്കിൽ നമുക്ക് പണമായിട്ട് അവരുടേക്ക് എത്തിച്ചു കൊടുക്കുക അവരുടെ അവരുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യാം പിന്നെ നമുക്ക് യൂട്യൂബുണ്ട് അപ്പം യൂട്യൂബിൽ ഇതു പോലെ വീഡിയോസ് ചെയ്യാം നമുക്ക് പ്രാഥമിക വിദ്യാഭ്യാസം ത്തിന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഇത് ന ഒരു നമ്പർ കൊടുക്കുക അതിൽ കോൺടാക്ട് ചെയ്യാൻ പറയാം അപ്പം നമ്മൾ പോയിട്ട് അന്വേഷിക്കുക അവർ ശരിക്കും അങ്ങനെ ഒരു സ്ഥിതിയിലാണോ എന്ന് അന്വേഷിച്ചതിനു ശേഷം അവർക്കു വേണ്ട സഹായം നമുക്ക് എത്തിച്ചു കൊടുക്കാവുന്നതാണ്